ജനുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഒൻപത്